ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു വലിയ അഭിപ്രായം ഒന്നും അല്ല നല്ലതാണെന്ന് പറയാനും പറ്റില്ല ചീത്തതാണെന്ന് പറയാനും പറ്റില്ല രണ്ടിൻ്റെയും ഇടയ്ക്കിലാണ് ഇന്ത്യയെ കുറിച്ച് ജനാധിപത്യരാജ്യം എന്ന നിലയിൽ ഇന്ത്യനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ സോറി നമ്മുടെ രാജ്യത്ത് കുറേ കുറേ നല്ല കാര്യങ്ങളും വരാനുണ്ട് അതായത് നമ്മൾ നമ്മുടെ രാജ്യത്ത് റോഡുകളും അതുപോലെത്തന്നെ ട്രാഫിക് പൊലൂഷൻ പിന്നെ അങ്ങനെ കുറേ കുറേ ചീത്ത കാര്യങ്ങൾ നമ്മളെ ലോകത്ത് നടന്ന് വരുന്നുണ്ട് അത് ഈ രാഷ്ട്രീയ നേതാക്കളൊന്നും കണ്ടുവരുന്നില്ല എന്നാണ് പറയാനുള്ളത് മെയിനായിട്ട് കാരണം അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ ലോകം രാജ്യം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അപ്പം അവരത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇപ്പം നമ്മളുടെ ഓരോരോ സ്ഥലത്ത് വെച്ച് നോക്കാൻ തന്നെ ഇപ്പം കേരളത്തിൽ നമ്മളെ കുറേ ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ഒരു സംഭവമാണ് ഈ മറ്റേ നമ്മളെ എന്താ പറയുക നമ്മൾ ആവെല്ലാ ഇപ്പം നമ്മൾ ഗേൾസ് പുറത്തിറങ്ങിയാൽ രാത്രി പുറത്തിറങ്ങിയാൽ അതിനുള്ള പ്രശ്നം അതുപോലെത്തന്നെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ട്രാൻസ്ജെൻറേഴ്സിന് കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം അവർ അവരെയൊക്കെ കാണുമ്പം അല്ല അവർ കളിയാക്കുകയാണ് ഇപ്പം കേരളത്തിൽത്തെ കേരളം മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇന്ത്യ പിന്നെ എനിക്കിഷ്ടം ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവാണ് കേരളം ഞാൻ എനിക്ക് മറ്റു രാജ്യങ്ങളെക്കുറിച്ച് എനിക്ക് മറ്റ് രാജ്യങ്ങളല്ല മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് സഹായത്തിനും കേരളം കൂടി നിൽക്കുന്ന കേരളത്തെ ആൾക്കാർ കൂടെ നിൽക്കുന്ന നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച ആ ഒരു വെള്ള പ്രളയത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് കേരളം എത്ര നന്നായി കൂട്ട് നിന്നിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് പിന്നെ പുറം പുറം സ്ഥലങ്ങൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല അപ്പം എനിക്ക് അങ്ങനെ അറിയില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയൊക്കെ ഭയങ്കര ട്രാഫിക്കും ബുദ്ധിമുട്ടും ഒക്കെ ആണ് അവിടെ അപ്പം കുറച്ച് നല്ല രീതിയിൽ

ഇനിയും ചേഞ്ച് ആവാനുണ്ട് നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു ഫ്രീ ഇൻഡിപ്പെെൻഡൻറ് ആയിട്ടുള്ളൊരു രാജ്യമാകണം